ഹലോ അതെ ആ എന്തായിരുന്നു

ആണോ എന്തൊക്കെ ആയിരുന്നു വേണ്ടത് എന്നാ ആവശ്യമുള്ളത് ഇവിടെ ഫ്രൈഡ് റൈസ് ഉണ്ട് ചപ്പാത്തി ഉണ്ട് പെറോട്ട ഉണ്ട് ചില്ലി ചിക്കൻ ഉണ്ട് എന്തായിരുന്നു വേണ്ടത് ഒരു സെറ്റ് ചപ്പാത്തി ആ എങ്ങനെയാണ് അതിപ്പം ആ കൊടുത്ത് വിടാൻ പറ്റും കൊടുത്ത് വിടാൻ പറ്റും ചിക്കൻ മതി ആ ഓക്കെ ഓക്കെ ഓക്കെ വേറെ എന്തെങ്കിലും വേണോ വേറെ എന്തെങ്കിലും വേണോ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ വെള്ളം ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ എടുത്തുകൊണ്ട് വരും ആ ഓക്കെ ഓക്കെ എന്തായിരുന്നു പറഞ്ഞത് അര മണിക്കൂറിനുള്ളിൽ അര മണിക്കൂറിനുള്ളിൽ ചായ കാപ്പി എന്തെങ്കിലും വേണോ വെള്ളം മതി ആ ഓക്കെ ഓക്കെ ആ ഹലോ ആ പിന്നെ എന്തൊക്കെ ആയിരുന്നു വേ പിന്നെ എന്തെങ്കിലും വേണോ വേറെ എന്തെങ്കിലും വേണോ ആ ഉടനെ കൊടുത്തു വിടാം ഉടനെ കൊടുത്തു വിടാം റെഡി ആയി കൊടുത്തു വിടാം ഇല്ല ഒന്നില്ലെങ്കിൽ അവിടുന്ന് കഴിക്കാം അല്ലെങ്കിൽ നിങ്ങക്കിവിടെ സൗര്യവൊണ്ട് പുറത്ത് വന്നിട്ട് ടേബിൾ ഉണ്ട് അവിടെ വന്ന് കഴിക്കണമെങ്കിൽ കഴിക്കാം എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ ആ അതെ ആ ആ ക് ആ അല്ല ഞ അവിടെ റൂം റൂം ബോയ് വന്ന് ക്ലീൻ ചെയ്തോളും കുഴപ്പമില്ല നിങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കിനേ അത് ക്ലീൻ ചെയ്യാനായിട്ട് ആൾക്കാർ വരും അവർ വന്ന് ചെയ്തോളും അത് കുഴപ്പമില്ല നിങ്ങൾ റൂമിൽ തന്നെ ഇരുന്ന് കഴിച്ചോ അപ്പം പിന്നെ റൂം എടുത്തതല്ലേ എങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് സൗകര്യം അത് കംപ്ലയിൻറ് ആണോ ആ ഞാൻ ആണ് ആണല്ലേ ആ എന്നാൽ പിന്നെ മെക്കാനിക്കിനോടൊന്ന് പറയട്ടെ അവിടെ ആ വന്ന് ചെയ്യ് ആ വന്ന് റെഡി ആക്കാൻ പറയാം കേട്ടോ അത് എപ്പം തൊട്ട് ആ എപ്പം തൊട്ടായിരുന്നു കംപ്ലയിൻ്റ് നിങ്ങൾ വന്നപ്പം തൊട്ടേ ഉണ്ടോ ആണോ അത് കുഴപ്പം ഒന്നും ഇല്ലായിരുന്നല്ലോ അതിന് അതാണ് ഞാൻ ചോദിച്ചത് ആ ആ ആ എന്നാൽ ഞാൻ ആളിനോട് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞ് ഞാൻ പറഞ്ഞേക്കാം അ ഉള്ള ആൾ വരുമേ ആണല്ലേ ആ ഹാ ഹാ ഹാ ആ ആ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആണല്ലേ ആ അതെ അതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ആ ശരി ഓക്കെ ഓക്കെ